ഹലോ സിൻഡ്രൽ ഗാർഡനിലെ പ്രിൻസിപ്പളല്ലേ ആ ഗുഡ് മോർണിംഗ് മാം എൻ്റെ മകൾ അവിടെ എൽ കെ ജിയിൽ അഡ്മിഷനെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മകളെ പേര് പിങ്കി ആ അതെ അവിടുത്ത ഫീസ് എങ്ങനെയാണ് മാം വൺ ലാക്ക് എൽ കെ ജിയിലേക്ക് മാത്രമാണോ ഓക്കേ അപ്പോൾ യു കെ ജിയിലെ ഫീ ഫീയും സെയിമാണോ ഓക്കേ അവിടെ ഫണ്ടെന്തെങ്കിലും അധികമായിട്ട് കൊടുക്കേണ്ടതുണ്ടോ ആ ഓക്കേ മാം അപ്പം എൻ്റെ മകൾക്ക് കരാട്ടയിലൊക്കെ ഭയങ്കര ഇൻ്ററസ്റ്റാണ് അപ്പോൾ അവിടെ കരാട്ടെ അതുപോലുള്ള എന്തെങ്കിലും ആക്റ്റിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ഓ വേറെന്തൊക്കെയാണ്

ആ മാം അപ്പോൾ ഇതിനൊക്കെ വേറെ ഫീസെന്തെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ ഓക്കേ അതിൻ്റെ ഫീസ് എങ്ങനെയാണ്

ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുമോ ഇനി അടുത്ത മാസമല്ലേ അഡ്മിഷൻ തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ശരി മാം

ഓക്കേ ഇതിൻ്റെ ലാസ്റ്റ് ഡെയ്റ്റ് എപ്പോഴാണ് അഡ്മിഷൻ്റെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡെയ്റ്റ് എപ്പോഴാണ് ആ ഓക്കേ മാം ആ ഓക്കേ മാം ഇവിടെ